ഹലോ ഇത് മീഷോൻ്റെ കസ്റ്റമർ കെയറല്ലേ ഞാൻ ഒരു കുർത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി അത് ഇപ്പോൾ ഒരു അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താണ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് മെയ് രണ്ടാം തീയ്യതിക്കാണ് എന്നിട്ട് ഇപ്പോൾ അത് പരിപാടിയും കഴിഞ്ഞ് ഇന്നലെ ആണ് എനിക്ക് ഇത് കൈയിൽ കിട്ടിയിട്ടുള്ളത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ടാണ് സാധനം കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഡ്രസ്സ് എടുക്കേണ്ടി വന്നു ഓ ഓൾറെഡി പൈസയൊക്കെ പേ അടച്ചിട്ടുള്ളതേനു ഓർഡറ് ചെയ്ത ഡ്രസ്സ് ഒന്ന് വന്ന ഡ്രസ്സ് വേറെ ആ വന്ന ഡ്രസ്സ് ആണെങ്കിലോ എന്തൊരു ഡ്രസ്സാണ് അതൊരു ആ ഒരു ഒരു സ്ത്രീക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അതായത് ഞാൻ ഓർഡറ് ചെയ്ത എന്തെ ലാർജ് സൈസാണ് വന്നിട്ടുള്ളതോ എന്താണ് ത്രിബിൾ എക്സൽ സൈസിൽ ഇത് എവിടെ ഇടാനാണ് ഇത്രയും വലിയ കുർത്ത ഒക്കെ കൊണ്ട് വന്നിട്ട് ഇനി ഇപ്പോൾ ഓർഡറ് ഇനി ഇപ്പോൾ തന്ന ഓർഡറ് മാറി ഇനി വരുന്നത് നല്ല ഡ്രസ്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു അതിൻ്റെ ഷോൾഡർ ഒക്കെ എവിടെയാണ് കിടക്കുന്നത് ചെയ്ത ഓർഡറും അല്ല കളറും നന്നല്ല സ്റ്റിച്ചിംഗും നന്നല്ല എന്തൊരു ഡ്രസ്സാണ് ഇത് ഇതിൻ്റെ വിലയാണെങ്കിൽ നല്ല വിലയുള്ള ഡ്രസ്സ് അല്ലേ അത് അത്രയും പൈസ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇടാൻ ഇത്ര മോശമാണോ നിങ്ങളുടെ സർവീസ് ഇനി എങ്ങനെയാനണ് വിശ്വസിച്ച് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുക അടുത്ത മാസം ഒരു ഫംഗ്ഷൻ ഉണ്ടേനു അതിന് വേണ്ടിയിട്ട് അഞ്ച് സെറ്റ് ഡ്രസ്സ് ഇതേ പോലെ ഓർഡറ് ചെയ്യാൻ നിന്നതാണ് ഇനി ഇപ്പോൾ അതൊക്കെ ക്യാൻസൽ ചെയ്യാം ഞങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും ഓർഡറ് എന്ത് അവശ്യപ്പെടുക ആവും നല്ലത്